എൻ്റെ ഗ്രാമത്തിലാർക്കെങ്കിലും പാമ്പുകടിയേറ്റാല് ഞാൻ ആദ്യമായിത്തന്നെ അയാളുടെ മാനസിക നില സംരക്ഷിക്കാനും വേണ്ടി അയാളോട് ഒന്നു സമാധാനപ്പെടാൻ പറയും അതോടൊപ്പം തന്നെ എത്രയും പെട്ടെന്ന് ഒരു ആംബുലൻസ് കോൾ ചെയ്യുകയും ചെയ്യും ഇതി ഇതിനൊന്നും കഴിയാത്തൊരു അവസരത്തിലാണ് ഞാൻ എങ്കിൽ പ്രത്യേകിച്ച് അയാളെ പെട്ടെന്നു കിടത്തുകയും വിഷം കൂടുതൽ ഉള്ളിലേക്കും ഞരമ്പുകളിലേക്കും രക്തത്തിലേക്കും ഒന്നും കലരാതിരിക്കാൻ പെട്ടെന്ന് ഞാനത് എൻ്റെ വായകൊണ്ട് ഊറ്റിയെടുക്കാൻ ശ്രമിക്കുകയും അത് അത് ഊറ്റിയെടുത്തു ഞാന് പുറത്തേക്കു കളയുകയും ചെയ്യും ഇതിനെനിക്കു സാധിച്ചിട്ടില്ല എങ്കിൽ ഞാൻ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ആശുപത്രിയിലേക്കു രോഗിയ കൊണ്ടുചെല്ലുകയും അവിടുത്തെ ഡോക്ടറുമായി കൺസൾട്ട് ചെയ്യിക്കുകയും ചെയ്യും ഇതിനും ഡോക്ടർ ഡോക്ടറുടെ അസാന്നിധ്യവും അതുപോലെ തന്നെ ആംബുലൻസിൻ്റെ അസാന്നിധ്യവും ആണെങ്കിൽ ഞാൻ എത്രയും പെട്ടെന്ന് അവിടെ പാമ്പ് കടിച്ചതിന്റെ കുറച്ചു മുകളിലായി ഒരു ശീല വച്ചു കെട്ടുകയും പാമ്പിൻ്റെ വിഷം രക്തത്തിലേക്കും ഞരമ്പുകളിലേക്കും എത്താതിരിക്കൻ ശ്രമിക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ ദൂരത്തുനിന്നുള്ള നിന്നുള്ള ആംബുലൻസുകളും മറ്റും വരുന്നത് ശ്രദ്ധിക്കും ഇതിനും സാധിച്ചിട്ടില്ല എങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും ഒരു വൈദ്യൻ്റെ അടുക്കലേക്ക് ഞാൻ എത്രയും പെട്ടെന്നു രോഗിയെ എത്തിക്കും വൈദ്യൻ്റെ അടുത്ത് എത്തിച്ചിട്ട് വൈദ്യൻ പറയുന്നതെല്ലാം അതുപോലെ ചെയ്ത് അതിനുള്ള മരുന്നുകളെല്ലാം ഞാൻ നൽകും അതോടൊപ്പം തന്നെ ആ രോഗിക്കുള്ള പ്രഥമ ശുശ്രൂഷകളും മറ്റും ഞാൻ ചെയ്തുകൊടുക്കും അതോടൊപ്പം തന്നെ ആ രോഗിക്കുള്ള എല്ലാ വിധ സഹായങ്ങളും ഞാൻ പെട്ടെന്ന് എത്തിച്ചുകൊടുക്കുകയും ചെയ്യും ഇതിനെല്ലാം സാധിച്ചിട്ടില്ല എങ്കിൽ രോഗിക്ക് ഞാൻ എന്നാൽ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്തുകൊടുക്കും അതുപോലെ തന്നെ ഒരു ഡോക്ടറെ എത്രയും പെട്ടെന്ന് എത്തിക്കാനും ഞാൻ ശ്രമിക്കും അല്ലെങ്കിൽ ഡോക്ടറെ എത്തിച്ചിട്ടില്ല എങ്കിൽ ഒരു വൈദ്യനെ എത്രയും പെട്ടെന്ന് അവൻ്റെ അടുക്കലേക്ക് എത്തിക്കുവാൻ ഞാൻ ശ്രമിക്കും